ഞങ്ങളുടെ നാട്ടിൽ സാധാരണ ഈ വയറിളക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ ലൂസ് മോഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താച്ചാല് എൻ്റെ അച്ഛച്ചനും അമ്മയും ഒക്കെ പറഞ്ഞു കേട്ട ഒരു കാര്യം എന്താച്ചാല് ജാതിക്ക എന്നു പറഞ്ഞൊരു സാധനമുണ്ട് ജാതിക്കേൻ്റെ കുരു അത് ഇങ്ങനെ ഉറച്ച് അതു കല്ലിലിട്ടുരച്ച് അതിൻ്റെ നീരെടുത്ത് അതിൻ്റെ കൂടെ തേനും കൂടിയും കൂട്ടി കഴിക്കുകയാണു ചെയ്യേണ്ടത് ജാതിക്കേൻ്റെ നീര് കഴിച്ചാൽത്തന്നെ പോവുമെന്നാണു പറയുന്നത് പക്ഷെ ഈ സാധനത്തിന് ഭയങ്കര കയ്പ്പായതുകൊണ്ട് നമുക്കു കഴിയ്ക്കാൻ പറ്റില്ല അപ്പം അത് ടേസ്റ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന്റെ കൂടെ നെയ്യ് തേൻ കൂട്ടുന്നത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തു കഴിച്ചാൽ വയറിനും നല്ലതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടുമെന്നും പറയുന്നുണ്ട് പിന്നെയെന്നു പറയുന്നത് കട്ടൻ ചായയിൽ നാരങ്ങ ഒഴിച്ചു കഴിക്കുന്ന ഒരു ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ നല്ലതാണ് ആരോഗ്യത്തിന് അല്ലെ നമ്മുടെ വയറിൻ്റെ എല്ലാത്തിന്റെയും എല്ലാത്തിനും നല്ലതാണ് എന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂടുതലും ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞതു പോലെ ജാതിക്കയിൽ തേൻ ഒക്കെ ആക്കിയിട്ടാണ് തേനും ചാലിച്ച് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കഴിയ്ക്കുമ്പോൾ പെട്ടെന്ന് ഒരര മണിക്കൂറിൽത്തന്നെ മാറുന്നുണ്ട് പിന്നെയെന്നു പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ ചായ ചായ നല്ല കടുപ്പത്തിൽ വെച്ചു കുടിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ അറിവിലുള്ള ഈ ഇതെന്നു പറയുന്നത് അതായത് ഇതിനു വേണ്ടിയിട്ടുള്ള ചികിത്സയെന്നു പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്